ഹലോ ഹരി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശരി പറയൂ എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഒരു ശരിയായ ഡയറ്റ് പ്ലാനും വ്യായാമവും പ്ലാൻ ചെയ്യാം നിങ്ങൾ ഇതുവരെ കൃത്യമായി വ്യായാമം ചെയ്തിട്ടുണ്ടോ ശരി നമുക്ക് സിമ്പിൾ ആയ എക്സർസൈസുകളിൽ നിന്ന് തുടങ്ങാം ആദ്യം കാർഡിയോ പ്ലാൻ കോഴ്സ് തുടങ്ങിയവ ചെയ്യാം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീന് ഉൾപ്പെടുത്താം ഉച്ചയ്ക്ക് ചോറിനൊപ്പം പ്രോട്ടീൻ റിച്ച് ആയ ഭക്ഷണം വൈകിട്ട് ലഘുവായ ഭക്ഷണം രാത്രിയും നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം മസിലുകൾ വളരാൻ ഇവ നിങ്ങളെ സഹായിക്കുന്നതാണ് സ്ഥിരതയാണ് പ്രധാനം ദിവസേന വ്യായാമം കൃത്യമായി ചെയ്യുക കൃത്യമായ ഡയറ്റ് പാലിക്കുക കൂടാതെ വെള്ളം കൂടുതൽ കുടിക്കണം അതേപോലെത്തന്നെ നന്നായി ഉറങ്ങുകയും ചെയ്യണം അതാണ് ഏറ്റവും നല്ല വർക്കൗട്ടിന് ആവശ്യമായ കാര്യങ്ങൾ തുടക്കത്തിൽ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വർക്കൗട്ട് ചെയ്യാം പതുക്കെ പതുക്കെ നമുക്ക് ഒരു മണിക്കൂറായിട്ട് ഉയർത്താം പിന്നീട് അഞ്ച് ദിവസം ആറ് ദിവസം ആഴ്ച്ചയിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ശരി നാളെ നമുക്ക് തുടങ്ങാം നാളെ രാവിലെ ആറ് മണിക്ക് ആരംഭിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആദ്യ സെക്ഷൻ നാളെയാണ് ആദ്യ സെക്ഷൻ ഇനി നിങ്ങൾ വരുമ്പോൾ ഒരു ടവൽ കരുതണം അതേപോലെത്തന്നെ കുടിക്കുവാൻ വെള്ളവും കരുതേണ്ടതാണ് വാട്ടർ ബോട്ടിൽ ടവൽ ഷൂ എന്നിവയോടൊപ്പം ഷൂവും അതേപോലെത്താന്നെ ഒരു ബാഗും കൊണ്ടുവരേണ്ടതാണ് തുടക്കത്തിൽ ശരിയായ വസ്ത്രങ്ങൾ ധരിക്കുക നന്നായി ഉറങ്ങുകയും ആവശ്യത്തിന് പ്രോട്ടീൻസ് എടുക്കുകയും ചെയ്താൽ ശരീരവേദന ഉണ്ടാവുകയില്ല ആദ്യം ഒന്ന് രണ്ട് ദിവസം വേദന ഉണ്ടാവും അത് പിന്നീട് ശീലമായി മാറിക്കോളും ആദ്യം നമുക്ക് ചെസ്റ്റിൽ തുടങ്ങി ലെഗ്ഗ് വരെ ചെയ്യാം അതിന് ശേഷം ഒരു ദിവസം രണ്ട് വർക്കൗട്ട് ആയി ക്രമീകരിക്കാം ചെസ്റ്റ് ബൈസ്സ് ട്രൈസ്സ് ലെഗ്ഗ് അങ്ങനെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അത് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ് ശരി നന്ദി